ഹലോ

ആ സാറേ ഞാനേ വൈറ്റിലയിൽ നിന്നാണേ വിളിക്കുന്നതേ എൻ്റെ പേര് റോസ്മി എന്നാണ് ഞാൻ ഇവിടെയൊരു ഈവൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹലോ കേൾക്കാമോ ആ ആ സാറേ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ബുക്ക് ചെയ്തത് ആ ഇരുപതാം തീയതിക്കായിട്ടാണ് ബുക്ക് ചെയ്തിരുന്നത് ഈ മാസം ഇരുപതാം തീയതിയിലേക്കാണ് ബുക്ക് ചെയ്തിരുന്നതേ ആ അതപ്പം നമ്മൾ കല്യാണം എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തിരുന്നേച്ചേ അപ്പം കല്യാണം നമ്മൾ മാറ്റി വെച്ചു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കന് പെട്ടെന്നൊരു ജോബിൽ സ്ഥലം മാറ്റം കിട്ടി അപ്പം അത് നമ്മൾ ആ ജോബിൽ കയറി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് നമുക്ക് ലീവ് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് കല്യാണം മാറ്റി വെച്ചു അപ്പം അതുകൊണ്ട് റീഫണ്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ അല്ല ഇപ്പം പെട്ടെന്നൊരു എമർജെൻസി ആയിട്ട് വന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് ജോലിയാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം അതുകൊണ്ട് മോളും പറഞ്ഞു എന്നാൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞേച്ചിട്ടും നടത്താമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മളങ്ങ് മാറ്റി വെച്ചു അപ്പം നമ്മൾ ഇപ്പം നടത്തുന്നില്ലല്ലോ പ്രോഗ്രാം അല്ല അത് നമുക്കങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അപ്പം കമ്പനിയുടെ ആ ഒരു ഡിസിഷനും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളിനി ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ പുതിയൊരു ഡേറ്റ് അപ്പം നമുക്കിനി പുതിയ ഡേറ്റ് കിട്ടി കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇനി വേറെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്നറിയാൻ പാടില്ലല്ലോ

ഉം സെവൻറി പെർസെൻറ്റേജേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഉം ഉം ഉം അപ്പം നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ല സാറേ നമ്മൾ ഇത് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ആ അഡ്വാൻസ് വാങ്ങിച്ചപ്പൊൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ സെവൻറി പെർസൻ്റെജ് മാത്രമേ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനല്ല ബുക്ക് ചെയ്തത് കൊണ്ടേ ചേട്ടനാണ് ചേട്ടൻ്റെ പേരിലാണ് ബുക്ക് ചെയ്തിരുന്നത് ജോജോ എന്നുള്ള പേരിലാണ് ബുക്ക് ചെയ്തിരുന്നത്

ഉം ആ അത് നമുക്ക് പറയാം ഞാനേ ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാം അത് നമുക്കും ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പോഴത്തെ ഇതിൽ റീഫണ്ട് ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ പുതിയ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ വിളിക്കാം ഇത് ഡെക്കറേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപെട്ടിരുന്നു ഫോട്ടൊ ഒക്കെ അയച്ച് തന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ ഇടത്ത് സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നത് വേറെ കുറേ ഇവന്റ് ഒക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തന്നത് അപ്പം ഈ പുതിയ വർക്ക് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് തന്നെ തന്നേക്കാം കുഴപ്പമില്ല ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് പറയാം ആ അപ്പം നമ്മൾ ഇത് അവിടുന്ന് വന്ന് വാങ്ങിക്കണോ അതോ ഗൂഗിൾ പേ അങ്ങനേലും ചെയ്യാൻ പറ്റുമോ ആ ആ എന്നാൽ പിൻ വാട്സപ്പ് ചെയ്യാം എന്നാൽ സെവൻ ഡേയ്സ് എടുക്കുമോ എത്ര ദി ദിവസം എടുക്കും ഓക്കെ ഓക്കെ ശരി ഓക്കെ എന്നാൽ താങ്ക് യൂ